ഇൻ്റർനെറ്റിൻ്റെ വളർച്ച വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് അത് വളർന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ടു ജി സെക്കൻഡ് ജെനറേഷൻ തേർഡ് ജെനറേഷൻ ഫോർത്ത് ജെനറേഷൻ അങ്ങനെയുള്ള ഫിഫ്ത് ജെനറേഷൻ വരെ ആയി ഇപ്പോൾ അതുകൊണ്ടു തന്നെ നമുക്ക് ഈ ജെനറേഷൻ വളർന്നതു കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ യൂസേജും നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇൻ്റർനെറ്റ് വളർന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കണത് നമ്മുടെ പ്രദേശത്തെന്താണ് നടക്കണത് നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കണതെന്ന് നമുക്ക് അറ്റ് എ ടൈം ഒരേ സമയം അറിയാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോൾ ന്യൂസ് നോക്കാനാണങ്കിലും എല്ലാം പണ്ടത്തെ കാലത്ത് പറഞ്ഞ നമ്മള് ഒരു വീട്ടിലൊക്കെയാണ് ടി വി ഉണ്ടാവുക നമ്മള് ആ ഒരു വീട്ടില് എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് ടി വി ഒക്കെ കാണേണ്ട അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജിയും ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ വളർച്ച കൊണ്ട് തന്നെ നമുക്ക് പെട്ടന്ന് എല്ലാ ന്യൂസുകളും കിട്ടും അതും വിത്തിൻ സെക്കന്റുകൾ കൊണ്ട് തന്നെ അത്രയും സ്പീഡിലാണ് നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യം ഉള്ളത് അതുകൊണ്ടു തന്നെ നമുക്ക് പെട്ടന്ന് എല്ലാ അക്സസ്സ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ന്യൂസ് ആണെങ്കിലും പഠിക്കാനുള്ള എന്തെങ്കിലും ആണങ്കിലും അതേപോലെ എന്തിനാണങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻ്റർനെറ്റ് അത് നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായി തന്നെ